അത്യാവശ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പാചകം ചെയ്യുകാന്നുള്ളത് എന്നിരുന്നാലും എപ്പോഴും പാചകം ചെയ്തത് വിചാരിച്ചതുപോലെത്തന്നെ വരണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ടുതന്നെ മിക്കവാറും വളരെ സ്വാദേറിയ രീതിയിൽത്തന്നെ നമ്മളുദ്ദേശിച്ച സാധനം വരാറുണ്ടെങ്കിൽക്കൂടിയും ചില സമയങ്ങളിൽ ഉദ്ദേശിച്ചതുപോലെ ശരിയായി വരാറില്ല അങ്ങനെ ഉദ്ദേശിച്ചതുപോലെ ശരിയായി വരാത്ത അവസരങ്ങളിൽ അധികം മോശമല്ലാത്ത രീതിയിലാണെങ്കിൽ അത് കഴിക്കും കാരണം വളരെ അധികം മോശമാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല എന്നിരുന്നാൽക്കൂടി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ ഉള്ളു എങ്കിൽ അത് തീർച്ചയായും ഞങ്ങൾ കഴിക്കാറുണ്ട് ഇനി ചെറിയ രീതിലുള്ള പ്രശനങ്ങൾ അല്ല കുറച്ചൂടെ മിതമായ രീതിലുള്ള പ്രശ്നങ്ങളാണെങ്കില് കാക്കക്ക് കൊടുക്കുകയോ മറ്റോ ചെയ്യാറുണ്ട് ഒരു വിധം വീടിനടുത്തുള്ള എല്ലാ പൂച്ചക്കും പട്ടിക്കും നമ്മളിവിടെത്തെ നമ്മളുണ്ടാക്കിയ പാചക വിഭവം മിക്കവാറും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവരതൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാറുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇനി അതുമല്ലന്നുണ്ടങ്കിൽ വളരെയധികം മോശമാവുകയാണെങ്കിൽ അതെടുത്ത് കളയുകയല്ലാതെ വേറെ വഴിയില്ല നമ്മള് പാചകം ചെയ്ത് അത്രെയധികം മോശമാവുകയാണെങ്കിൽ മാത്രാണ് അത് ദൂരേക്ക് എറിഞ്ഞു കളയുകയുള്ളൂ അതിനു നമ്മൾ കളയാനായിട്ട് ബയോഗ്യാസ് പ്ലാൻ്റിൽ ഇടുകയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് അപ്പോൾ ഞാനുദ്ദേശിച്ചപോലെ പാചക രീതി ഉദ്ദേശിച്ചതുപോലെ ശരിയായി വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെയാണ് സാധാരണയായി ഞങ്ങള് ചെയ്യാറുള്ളത്